ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതലും മതവിഭാഗക്കാരുള്ള ജനാധിപത്യരാജ്യമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ് രാജ്യത്ത് വിവിധ മതത്തിലുള്ള ജനങ്ങൾ വസിക്കുന്ന പ്രദേശമാണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്ന ഒട്ടനവധി ആഘോഷങ്ങളുണ്ട് അതിൽ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം ജാതിമത ദേശഭേദമന്യേ കേരള മക്കൾ ലോകത്തെവിടെയുണ്ടോ അവിടെയെല്ലാം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി കണക്കാക്കുന്നു ഇന്ന് രാജ്യത്ത് എമ്പാടും ആഘോഷിക്കുന്ന മതപരമായിട്ടുള്ള ആഘോഷങ്ങളുണ്ട് ദീപാവലി ഗണേശോത്സവം ക്രിസ്തുമസ് ഈസ്റ്റർ നബിദിനം ഇവയെല്ലാം കേരളത്തിൽ അങ്ങോളം ഇന്ത്യയിൽ അങ്ങോളമുള്ള ഇങ്ങോളവുള്ള വിവിധ മതസ്ഥരായിട്ടുള്ള ആൾക്കാരാഘോഷിക്കുന്ന ആഘോഷങ്ങളാണ് നാനാത്വത്തിൽ ഏകത്വമെന്നാണ് ഇന്ത്യയിലെ സംസ് ഇതിനെ സംസ്കാരത്തെ പറയാനുള്ളത് കശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഓക്കെ താങ്ക് യൂ